എനിക്ക് ഏറ്റവും കൂടുതൽ വായിക്കാൻ പ്രിയമുള്ള ബുക്ക് സെൽഫ് ഹെൽപ്പ് ബുക്സാണ് നമ്മള് സ്വയം നമ്മുടെ പേർസണാലിറ്റീനെ വളർത്താൻ കഴിവുള്ള ബുക്കുകളാണ് ഞാൻ കൂടുതല് വായിക്കാറ് ഈ അടുത്തിടെ ഞാൻ ആ ഒരു മേഖലയിൽ ആ ഒരു ജോണറിൽ വായിച്ച വായിച്ചൊരു ബുക്ക് അറ്റോമിക് ഹാബിറ്റ്സ് ആണ് ജെയിംസ് ക്ലിയറിന്റെ ആ ബുക്ക് നമ്മളെ ജീവിതത്തില് ചിട്ടകളെ എങ്ങനെ പുതിയതാക്കാം പഴയ ചിട്ടകളെ മാറ്റി പുതിയൊരു ജീവിത രീതി എങ്ങനെ നമുക്ക് രൂപീകരിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ആ ബുക്ക് പറയുന്നത് എനിക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു ബുക്കാണ് അങ്ങനെയുള്ള സെൽഫ് ബുക്സ് ഓഷോയുടെ ബുക്സുകൾ എനിക്കിഷ്ടമാണ് അങ്ങനെയുള്ള പുസ്തകങ്ങളാണ് ഞാൻ കൂടുതലും വായിക്കാറ് പിന്നെ ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് ബൈ വിൻസന്റ് നോർമൻ പെലെ അവരുടെ ബുക്കുകള് എനിക്ക് ഇഷ്ടമാണ് അത് മാത്രമല്ല മറ്റു ജേണലും വായിക്കാറുണ്ട് പക്ഷെ എന്നാലും സെൽഫ് ഹെൽപ്പായിട്ട് സ്വയം നമ്മുടെ സ്വഭാവരൂപീകരണ മേഖലയെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന ബുക്കുകളാണ് ഞാൻ കൂടുതല് വായിക്കാറ്